ഹലോ ഹലോ അതെ ആണ് അജയ് ഗോഷോ ആ അഭിഷേക് മാഷാണ് ആരായിരുന്നു ഏത് കോഡിനേറ്ററ് എവിടുത്തെ കോഡിനേറ്ററാണ് ആ ഓഹ് മനസ്സിലായി മുഖ്യ ആ ഓക്കെ ഓക്കെ എന്താ വിളിച്ചത് സാറെ ഇന്ന് ഇന്നലത്തെ മേച്ചോ ആ നല്ല മേച്ചായിരുന്നു നിങ്ങളവിടെ നല്ല സൗകര്യങ്ങളൊക്ക ഉണ്ടായിരുന്നു ഓക്കെ ഞങ്ങളുടെ പ്ലെയേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ടു ഗ്രൗണ്ട്സൊക്കെ ഇന്നലെ മഴയില്ലാത്ത കാരണമത് നല്ല സൗകര്യം ഉണ്ടായിരുന്നു കളിക്കാൻ ആ അങ്ങനെ എതിർപ്പൊന്നും ഫീൽ ചെയ്തിട്ടില്ല മഴയില്ല നല്ല കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് നന്നായിട്ടെല്ലാവരും പോയി സോക്സ് കൂടുതൽ സ്റ്റോക്ക് ചെയ്യണം നിങ്ങൾ പ്ലെയേഴ്സിന് വെൽക്കം ഡ്രിങ്ക് കൊടുക്കണത് നല്ലതായിരുന്നു

അല്ല ഞങ്ങളുടെ പ്ലെയേഴ്സുകാർക്ക് കിട്ടിയില്ല ഞങ്ങളുടെ പ്ലെയേഴ്സ് പറഞ്ഞത് ആരോ കുടിച്ചത് കണ്ടെന്നാണ് ഒറ്റക്കത് കുടിച്ചിട്ട് എൻ്റെ പ്ലെയേസിൻ്റെ തലയിൽ വെക്കുന്നത് കുറ്റമല്ലേ

എഴുതിക്കോളൂ ഞങ്ങളല്ലയോ അവിടെ ഫസ്റ്റടിക്കുന്നതെപ്പോഴും പിന്നെയെന്താ ഞങ്ങളല്ലേ എപ്പോഴും അവിടെ ഫസ്റ്റടിക്കുന്നത് എഴുതിക്കോളൂ ഞങ്ങളില്ലെങ്കിൽ എന്ത് കളിയവിടെ അതാ ഇത്തവണ അവിടെനിന്ന് കപ്പെല്ലാമവളാണ് വാരിക്കൊണ്ടുപോയത്

നമ്മുടെ ടീമിൻ്റെ പവറ് വേറെ ടീമിനുണ്ടോ ഇല്ലല്ലോ നമ്മുടെ ടീമിൻ്റെ പവർ പവറ് വേറെ ടീമിനൊന്നും ഇല്ല ആ എന്നത്തേക്കിനാണ് ഡെയ്റ്റ് വല്ലതും കൺഫേമായോ ടൈമോ ഡെയ്റ്റോ വല്ലതും

ആണോ അത് എത്രണ്ണമാണ് എത്ര ടീമുണ്ട് ആ ഈ വർഷം സ്പെഷലായിട്ടെന്തെങ്കിലും നിങ്ങൾ വെക്കുന്നുണ്ടോ പ്ലെയേഴ്സിന് വേണ്ടിയോ പ്ലെയേഴ്സിനുവേണ്ടി വല്ലതും സ്പെഷ്യലായിട്ട് നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ

ആ ഓക്കെ ഓക്കെ ചെറിയ തിരക്കുണ്ടായിരുന്നു പ്ലെയേഴ്സിന് ട്രെയ്നിംഗ് കൊടുക്കുകയായിരുന്നു ഒന്ന് ട്രെയ്നിംഗ് കൊടുത്തോട്ടെ പിന്നെ വിളിക്കാം ഓക്കെ പിന്നെയൊന്ന് കോൺടാക്ട് ചെയ്യൂ ശല്യപ്പെടുത്താതെ